അതിഥികളെ എങ്ങനെയാന്ന് വെച്ചാൽ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അതിപ്പം അവര് വരികയാണെങ്കിൽ നമ്മള് ആദ്യം അവർക്ക് കൊടുക്കുക ചായയും കടികളും ആയിരിക്കും അവര് നേരത്തെ അ പറഞ്ഞറിയിച്ച് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മളാദ്യം പിന്നെ നമ്മള് കടികളൊക്കെ മേടിച്ച് വച്ച് രണ്ടാമത് അപ്പം നമ്മള് അവര് വരുമ്പത്തേക്കും ചായ വെച്ച് കടികളൊക്കെ മേശയിൽ നിരത്തി അങ്ങനെ ആണ് ആദ്യം സ്വീകരിക്കുക പിന്നേന്ന് വെച്ചാൽ ഉച്ചത്തെ ഭക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മള് അങ്ങനെയും കൊടുക്കും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിഥികൾക്കായിട്ട് കൂടുതലും നമ്മള് ചിക്കൻ ബിരിയാണി അതല്ലെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ അതൊക്കെയാണ് നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങള് നമ്മള് അതൊക്കെ ആണ് ചെയ്യാറ് അതാകുമ്പോൾ നമുക്ക് സമയ ലാഭമാണ് നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമ് വേണം അതേപോലെ നമ്മള് ഭക്ഷണത്തിന് പല കറികളും വേണം നമ്മളിപ്പം നമുക്ക് സാധാരണ വീട്ടില് ഉണ്ടാക്കുന്ന പോലെ ഒരു കറിയും ഒരു അച്ചാറും അത് പോരല്ലോ നമ്മളുടെ വീട്ടില് ഒരാള് വരുമ്പോൾ നമ്മള് അവരെ അങ്ങനെ നമ്മള് അതായത് അവര് നമ്മള് നമ്മള് അങ്ങനെ അവരെ സ്വീകരിക്കണമല്ലോ അത്ര നല്ലോണം നമ്മള് സ്വീകരിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു കടമ എന്ന് വെച്ചാല്